എൻ്റെ വീട്ടിൽ കക്കൂസുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ മലമൂത്ര വിസർജ്ജനങ്ങൾ അതിൽനിന്നുതന്നെ നമ്മൾ അതിൽ നിന്നുതന്നെ നമ്മൾ ഓൾറെഡി കക്കൂസുണ്ടെങ്കിൽ അതിൽ പോകുകയാണെങ്കിൽ ഓൾറെഡി അത് പുറത്തുനിന്ന് തുറസ്സായ സ്ഥലത്തുനിന്ന് അത് ഇൻഫെക്ഷൻ ആവാതെയൊക്കെ നൽകുന്നൊരു മീൻസ് ഉപകാരമുള്ളതെന്നു വെച്ചാൽ മെയ്നായിട്ട് അത് ഒരു ഒരു വീട്ടിലുണ്ടെങ്കിൽതന്നെ നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ മീൻസ് ഒന്ന് ഒന്നിനെ പുറത്തോട്ട് ഒന്ന് അണുക്കളൊന്നും പകരാതെ ഓർഗൻസിലൊന്നും ആക്കാതെ ഇരിക്കും പക്ഷേ പണ്ട് കാലത്തെന്ന് വെച്ചാൾ തുറസ്സായ സ്ഥലത്തായിരുന്നു മലമൂത്ര വിസർജ്ജനം നടത്തി കൊണ്ടിരുന്നത് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രാണികളൊക്കെ അതിൽ വന്നിരിക്കുകയും അതുമൂലം ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ഇല്ലെന്നല്ല എന്നാലും തന്നെ ഒരു വീട്ടിൽ കക്കൂസ്സൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റേതായ ഉപയോഗങ്ങൾ വളരെ കൂടുതലാണ് കാരണം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് രോഗങ്ങൾ തന്നെ പ്രതിരോധിക്കാൻ പറ്റും കാരണം ഇപ്പം പൊതു പൊതു സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഒരു ട്രെയിനിലാണെങ്കിലും നമ്മൾ പുറത്തെവിടെ പോയാൽ തന്നെ ഹോട്ടലിൽ എവിടെയാണെങ്കിലൊരു കക്കൂസുണ്ടായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ് അപ്പം യാത്രകളൊക്കെ പോകുമ്പോഴേറ്റവും കൂടുതൽ നമ്മൾ മീൻസ് നമുക്ക് എന്തായാലും ഒരു മലമൂത്ര വിസർജ്ജനത്തിന് ഏറ്റവും യൂസ്ഫുൾ തന്നെ ആയിരിക്കും യൂറിനൽസിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഒരുപാട് ബുദ്ധി മുട്ടുകളെന്ന് വെച്ചാൽ ഇല്ലാതെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ അത് ഒരുപാട് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു അപ്പം എല്ലാം എല്ലാ തരത്തിലും അത് നമ്മുടെ ആരോഗ്യപരമായ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പം ഇല്ലാതെ വന്നു കഴിഞ്ഞാലൊരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാ രീതിയിലും തന്നെ നേരിടേണ്ടി വരും